വിനോദസഞ്ചാരികൾ ഞങ്ങളുടെ കൊല്ലം ജില്ലയിൽ കണ്ടിരിക്കേണ്ട കാര്യങ്ങൾ ഞങ്ങളുടെ കൊല്ലം ജില്ലയിൽ ഒരുപാട് വിനോദ സഞ്ചാര കേന്ദ്രങ്ങളുണ്ട് കൊല്ലം ജില്ലയിൽ ഞങ്ങളുടെ സമീപപ്രദേശമായ പിന്നെ ചടയമംഗലത്ത് ജടായു പാറയുണ്ട് അവിടെ നല്ല ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ് അവിടെ പോയാൽ ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട് അവിടെ ര ടിക്കറ്റ് എടുത്ത് ടിക്കറ്റുണ്ടവിടെ ടിക്കറ്റില്ലാതെ അവിടെ കാണാൻ സാധിക്കത്തില്ല പിന്നെ കേബിൾ കാറിലൂടെയാണ് ജടായു പാറയിലേക്ക് ആൾക്കാരെ കൊണ്ടു പോകുന്നത് അവ്ടെ പിന്നെ ടിക്കറ്റ് എടുത്ത് അവിടെ നമ്മൾ എയർപോർട്ടിലൊക്കെ നമ്മളെ ഇരുത്തുന്നതു പോലെയാണ് അവിടെ ഇരുത്തുന്നത് പിന്നെ അവിടെ ചെന്നുകഴിഞ്ഞാൽ നല്ല മലനിരകളുടെ മുകളിലൂടെയാണ് ജടായുപാറ കാണാൻ സാധിക്കുന്നത് അവിടെ ചെന്ന് കഴിയുമ്പോൾ ഒരുപാട് കാഴ്ചകളുണ്ട് ഞങ്ങളുടെ കൊല്ലം ജില്ലയിൽ ഏകദേശ സ്ഥലങ്ങളെല്ലാം തന്നെ ആ ജടായു പാറയുടെ മുകളിലിരുന്നാൽ കാണാം പിന്നെ അടുത്തയൊരു വിനോദസഞ്ചാര കേന്ദ്രമാണ് ഞങ്ങളുടെ സമീപ പ്രദേശമായ സമീപ പഞ്ചായത്തായ അലൈൻമെൻറ്റ് പഞ്ചായത്തായതിൻ്റെ കീഴിലുള്ള മീൻകുളം പള്ളിയുടെ അടുത്ത് ഒരു കുടുക്കുത്തിപ്പാറയുണ്ട് അത് അവിടെ നിന്നും ഒരു ബസ് സഞ്ചാരം നടന്ന് ഞങ്ങൾക്കാ കുടുകുത്തിപ്പാറ വരെ പോകണമെങ്കിൽ രണ്ട് കിലോ മീറ്ററോളം നടന്നത് ആ പാറയുടെ മുകളിൽ ചെല്ലാൻ സാധിക്കത്തുള്ളൂ അത് അവിടെ ചെന്നാൽ അതിമനോഹരമായ പ്രകൃതി സൗന്ദര്യമാണ് അവിടെ ഉള്ളത് നല്ല ഒരു അനുഭവമാണ് ആ കാഴ്ച്ച കാണാനുള്ളത് നമ്മുടെ കണ്ണിന് ഇമ്പം നൽകുന്ന നല്ലയൊരു അനുഭവമാണ് അവിടെയുള്ളത് പിന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടെ കൊല്ലം ജില്ലയുടെ തന്നെ ഒരു അഭിമാനമാണ് ബ്രിട്ടീഷുകാരുടെ കാലത്ത് പണിത ആയിരത്തി എണ്ണൂറ്റി എഴുപത്തൊന്നിൽ പണിത തൂക്കു പാലമുണ്ട് അതിൻ്റെ അതേ തനിമയോടു കൂടിയാണ് ഇന്നും അതവിടെ നിലകൊള്ളുന്നത് അവിടെ ഒരുപാട് വിനോദസഞ്ചാരികൾ തൂക്കുപാലം കാണാൻ വരാറുണ്ട് കല്ലറയാണ് കല്ലടയാറിൻ്റെ മേലൂടെയാണ് തൂക്കുപാലം പോകുന്നത് അതിന് സമാന്തരമായി ഹൈ വേ ഉണ്ട് നാഷണൽ ഹൈ വേ റോഡുമുണ്ട് അതിന് സമാന്തരമായിത്തന്നെ റെയിൽ വേയും ഉണ്ട് ഈ മൂന്നും സമാന്തരമായിത്തന്നെയാണ് ഈ കല്ലടയാറിൻ്റെ നടുവിലൂടെ പോകുന്നത് അത് അതിമനോഹരമായ ഒരു കാഴ്ച്ചയാണ് തൂക്കുപാലം പിന്നെ ആ തൂക്കുപാലത്തിലൂടെ കയറി അങ്ങ് മുൻപോട്ട് കൊല്ലം ചെങ്കോട്ട റോഡിലൂടെ പോകുമ്പോൾ പതിമൂന്ന് കണ്ണറ പാലം എന്നു പറയുന്ന സ്ഥലമുണ്ട് അവിടം വരെ ചെല്ലുന്നതിനു മുൻപു തന്നെ ലുക്ക് ഔട്ട് എന്നു പറയുന്ന ഒരു സ്ഥലമുണ്ട് അതും ബ്രിട്ടീഷുകാരുടെ കാലത്ത് പണിതതാണ് ആ ലുക്ക് ഔട്ടിൽ നിന്നാൽ കല്ലട ആറിൻ്റെ കല്ലട ഡാമിൻ്റെ തെന്മല ഇറിഗേഷൻ പദ്ധതിയുടെ വെള്ളം ഷട്ടറുകൾ തുറന്നു വിടുമ്പോൾ ഇവിടെ വന്ന് നല്ല ശക്തിയായി നല്ല ഭംഗിയാണ് അത് ഒഴുകിപോകുന്നത് കാണാൻ ആ റോഡിലൂടെ നേരെ പോകുമ്പോഴാണ് തെന്മല എത്തുന്നത് തെന്മല കഴിഞ്ഞ് തെന്മലയിൽ പിന്നെ തെന്മല ഡാമുണ്ട് അത് പിന്നെ ഭയങ്കര ഒരു വലിയ ഡാമാണ് അവിടെ പിന്നെ ഒരുപാട് കാഴ്ച്ചകളുണ്ട് തെന്മല ഡാം കാണാനായിട്ട് നമ്മുടെ കേരളത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്നും ഈ ഡാം സന്ദർശിക്കാൻ ആൾക്കാർ വരാറുണ്ട് അവിടെ പിന്നെ വനത്തിലൂടെ ഒരുപാട് ബിംബങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതെല്ലാം കാണാൻ പോകാറുണ്ട് പിന്നെ ജലത്തിൻ്റെ വെള്ളത്തിൻ്റെ ഡാൻസിങ് അങ്ങനെ പലതുണ്ട് പിന്നെ അവിടെയുണ്ട് ഒരുപാട് വിനോദങ്ങൾ തെന്മല ഡാമിൽ അവിടെ ചെന്നാൽ കാണാനായിട്ട് സാധിക്കും ഈ തെന്മല ഡാമിൻ്റെ റോഡു വഴി ഇങ്ങനെ മുൻപോട്ടു പോകുമ്പോൾ പതിമൂന്ന് കണ്ണറപാലം എന്നു പറയുന്നൊരു പാലമുണ്ട് അതിൻ്റെ പ്രത്യേകത പതിമൂന്ന് അറകളോടു കൂടിയ ഒരു പാലമാണ് അതിൻ്റെ താഴ് ഭാഗത്ത് നമ്മുടെ കൊല്ലം ചെങ്കോട്ട റോഡാണ് മുകളിൽ ഈ പതിമൂന്ന് കണ്ണറ പാലത്തിൻ്റെ മുകളിലൂടെ പിന്നെ ഒരു റയിൽ വേ റോഡാണ് റെയിൽ വേ റോഡെന്നു പറഞ്ഞാൽ പണ്ടത് മീറ്റർ ഗെയ്യ്ജായിരുന്നു ഇപ്പോൾ അത് ബ്രോഡ് ഗെയ്യ്ജായിട്ട് ഉയർത്തിയിട്ടുണ്ട് ഇത് പിന്നെ എറണാകുളം മുതൽ പാലരുവി എന്നു പറയുന്ന എക്സ്പ്രസ്സ് പോകുന്നത് ഈ റോഡിലൂടെയാണ് വേളാങ്കണ്ണി പോകുന്നവർക്ക് എളുപ്പമാണ് ഈ റയിൽ വേയിലൂടെ പോകുവാനായിട്ട് അങ്ങനെ അന്യസംസഥാനങ്ങളുമായി ബന്ധിപ്പിക്കുന്ന ഒരു റോഡാണ് ഈ റെയിൽ വേ റോഡ് ഈ റോഡിലൂടെ മുൻപോട്ട് ഇങ്ങനെ പോകുമ്പോൾ ഞങ്ങളുടെ ഏറ്റവും നല്ല വിനോദ സഞ്ചാര കേന്ദ്രമായ പാലരുവിയിൽ ചെന്നെത്തും പാലരുവി നമ്മുടെ ആര്യങ്കാവിലാണ് ആര്യങ്കാവ് എന്നു പറയുന്നത് പിന്നെ നമ്മുടെ കൊല്ലം ജില്ലയുടെ മലയോര ഗ്രാമമാണ് അവിടെ പിന്നെ അന്യനാടുകളിൽ നിന്നും വടക്കു നിന്നൊക്കെ ആൾക്കാർ വന്ന് കുടിയേറി പാർക്കുന്ന സ്ഥലമാണ് പാലരുവി അവിടെ നയനമനോഹരമായ അനേകം കാഴ്ചകൾ അവിടെ കാണാനുണ്ട് പാലരുവി വെള്ളച്ചാട്ടത്തിൽ ചെന്നാൽ പാലൊഴുകുന്നതു പോലെയാണ് ആ വെള്ളം ഒഴുകി വരുന്നത് അവിടെ അനേകം വിനോദ സഞ്ചാര സഞ്ചാരികൾ അവിടെ വരാറുണ്ട് ഓ നല്ല കണ്ണിന് ഇമ്പമേകുന്ന പക്ഷികൾ നല്ല നല്ല ബട്ടർഫ്ലൈകൾ കിളികൾ എല്ലാ അതിൻ്റെ കിളികളുടെ ആരവത്തോടു കൂടിയാണ് അവിടെ നമ്മൾക്ക് ചെന്നെത്തുന്നത് അതിമനോഹരമായ ഒരു